ഹലോ ആ നമുക്ക് ഓണത്തിന് അപ്പോൾ കുറച്ചു ചെണ്ടുമല്ലി ആ അതില് അതിലുള്ള ആ അതില് മൂന്ന് കളറും ഒരു പതിനഞ്ചു കിലോ പതിനഞ്ച് കിലോ എടുത്തു വെച്ചോളൂ അതെയതെ

ആ ഇതിന്

എല്ലാ കളറും സെയിം റേറ്റ് അല്ലേ ഇതിപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ വാടുമോ അത് പൂവിടാൻ ആകുമ്പോഴേക്കും ഫ്രഷാണ് നിങ്ങൾ ഓണത്തിനുവേണ്ടി മാത്രം ഫ്രഷായിട്ടു കൊണ്ടുവന്നതാണ് ഓക്കേ അതൊരു പത്തു കിലോ എടുത്തോ ആ അതിൻ്റെ തന്നെ രണ്ടു കളറും ഒരു പത്തു കിലോ പത്തു കിലോ വെച്ചെടുത്തോ വാടാമല്ലി ആ രണ്ടും മിക്സിഡായിട്ടു കുറച്ചു കുറച്ചു എടുത്താൽ മതി ജമന്തിയൊരു നാലു കിലോ എടുത്തോ വെറെ എങ്ങനെയാ റേറ്റ് വരുന്നത് ജമന്തിയ്ക്ക് കിലോ കിലോ എൺപത് വരുന്നുണ്ടല്ലേ ആ അതെടുത്തോ പിന്നെ വേറെ വേറെയേതൊക്കെ പൂ ആ തെച്ചി കുറച്ചെടുത്തോ ആ മതി അത് ഒരു അത് രണ്ടു കിലോ മതി അത് അതിനെങ്ങനെയാ റേറ്റ് വരുന്നത് ഉം അതിന് ഇനിയിപ്പോൾ ഓണത്തിന് ദിവസം അടുക്കുമ്പോൾ കൂടുതൽ റേറ്റ് കൂടുമോ വേറെ കടകളെക്കാളും കൂടുതലാണോ ഇവിടെ ആ അത് എടുത്തോളു ഒരു നാലു കിലോ എടുത്തോളൂ അതിൻ്റെ റേറ്റ് എങ്ങനെയാ

കളറ് വ്യത്യാസം വരുന്നല്ലേ അപ്പോൾ അത് അപ്പോൾ അത് എങ്കിൽ മിക്സ്ഡായിട്ട് എടുത്താൽ മതി അതെ ആ എടുത്തോളൂ അതെയതെ അതെ ഉം അതിന് പ്രശ്നം ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ വാടിയപ്പോൾ ആ ശരി ശരി ആ അതെടുത്തോളൂ